ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ആണ് ജോലി ചെയ്യുന്നത് ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്നു എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എൻ്റെ അശ്രദ്ധ മൂലം പറ്റിപ്പോയ തെറ്റിനെ ഞാൻ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു ഹോസ്പിറ്റലിൽ അസുഖമായി വന്ന രോഗിയെ ചികിത്സക്കുശേഷം ബില്ലടപ്പിക്കാതെ തിരിച്ചു വിട്ടതാണ് എനിക്ക് പറ്റിയ അശ്രദ്ധ അൽപ്പസമയത്തിനു ശേഷം അതു തിരിച്ചറിഞ്ഞ ഞാൻ രോഗിയുടെ കോൺടാക്ട് നമ്പറിൽ അവരെ വിളിച്ച് വിവരമറിയിച്ചു അവരെക്കൊണ്ട് ബില്ലടപ്പിച്ചു ഇതാണ് എനിക്ക് ജോലി സ്ഥലത്ത് പറ്റിയ അശ്രദ്ധ അതു ഞാൻ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു